നമുക്ക് വീടുകളിൽ തന്നെ ഒരു കുടുംബത്തിന് ഒരു പശു എന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയത് വേണം രണ്ട് പശുക്കളാണ് നല്ലത് കാരണം ഒരു സമയം എപ്പോഴും നമുക്ക് കറവ ഉണ്ടാകണമെങ്കിൽ പശു പാൽ നമുക്ക് എപ്പോഴും ലഭ്യമാകണമെങ്കിൽ രണ്ട് പശു എങ്കിലും വേണം എന്നുള്ളതാണ് അപ്പോൾ ഒരു പശുവിന് നമ്മൾ കറവ വറ്റി കഴിയുമ്പോൾ നമുക്ക് മറ്റെ എപ്പോഴും നമുക്ക് പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കാം നമുക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കും ഇത് നമുക്ക് ദിവസം എന്നോണം പാൽ വിറ്റ് കാശാക്കാം അതോടൊപ്പം തന്നെ മിച്ചം വരുന്ന പാൽ നമുക്ക് ഉറ ഒഴിച്ച് തൈരും മോരും വെണ്ണ വെണ്ണയും നെയ്യുമൊക്കെ ആക്കി മാറ്റാൻ സാധിക്കും അതോടൊപ്പം ചാണകം നമുക്ക് മണ്ണിൽ കമ്പോസ്റ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും ഇന്ന് ചാണകത്തിന് നല്ല ഡിമാൻ്റാണ് കാരണം ചെറുകിട കർഷകർ ചാക്ക് ഒരു ചാക്ക് വളത്തിന് വേണ്ടി ചോദിച്ച് വരുന്നുണ്ട് നമ്മൾ അത് ഉണക്കി ഒരു ചാക്ക് കൊടുക്കുന്നത് അതും നമുക്ക് വരുമാന മാർഗമായിട്ട് ചേരുന്നത് അതുപോലെ തന്നെ ആടും ഇതു പോലെ തന്നെ നല്ല ഒരു വരുമാന മാർഗമാണ് ആട് ആറ് മാസത്തിലോ പ്രസവിച്ച് നമുക്ക് കുട്ടികളെ കിട്ടും ഒരു ഒരു പ്രസവത്തിൽ രണ്ടും മൂന്നും നാലും കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ ആ പെൺ കുഞ്ഞുങ്ങളെ നമുക്ക് നിർത്തിയിട്ട് ആൺ കുഞ്ഞുങ്ങളെ നമുക്ക് വിറ്റ് കാശാക്കാം അതും നമുക്ക് നല്ല ഒരു വരുമാന മാർഗമാണ് ആട്ടിൻ പാൽ ഇന്ന് തുച്ഛമാണ് ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു പാലാണ് ഇപ്പം പാലാണ് ആട്ടിൻ പാൽ നമുക്ക് സമൂഹത്തിൽ കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഒത്തിരി രോഗികൾക്ക് ആട്ടിൻ പാൽ സിദ്ധ ഔഷധമാണ് അത്കൊണ്ട് നമുക്ക് ഇതിനെ തീർച്ചയായിട്ടും വരുമാന മാർഗമാക്കാം അത്പോലെ തന്നെ കോഴി കോഴി മുട്ടക്കോഴിയാണ് നല്ലത് നമുക്ക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നത് വുന്നത് പോലെ തന്നെ ചുറ്റുപാടുമുള്ള വീടുകളിലേക്ക് നമുക്ക് മുട്ട കൊടുത്താൽ അതും ഒരു വരുമാന മാർഗമായി നമുക്ക് ഉപയോഗിക്കാം